ഞാൻ അലീന ആണല്ലോ സംസാരിക്കുന്നത് ആ നമ്മൾ ഇവിടെ ഇപ്പം ഭരതനാട്യത്തിൻ്റെ ഒരു ഫങ്ക്ഷനുണ്ട് അപ്പം പിന്നെ അതിനുവേണ്ടി അപ്പം പിള്ളേരെ ഇപ്പം ഒരുക്കിക്കൊണ്ടിക്കുകയാണ് അതിന് വേണ്ടി സമയം ഇപ്പം എനിക്ക് തോന്നുന്നു പത്തുമണിക്കാണെന്ന് തോന്നുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ എല്ലാം അപ്പം അതിനനുസരിച്ച് കോസ്റ്റുംസ് ഒക്കെയൊന്ന് റെഡി ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മൂന്നുമണിക്കാണ് ആതിരയുടെ പ്രോഗ്രാം ആക്ച്വലി മൂന്ന് മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വച്ചേക്കുന്നത് നമ്മൾ ആതിരക്ക് വേണ്ടി മൂന്ന് മണിക്ക് നമ്മൾ എല്ലാം ചെയ്ത് വച്ചേക്കുന്നത് കാരണം ഇതിൻ്റെ ഒക്കെ നൃത്തം ചെയ്യുമ്പത്തേനും അതിൻ്റെ വേഷഭൂഷങ്ങളൊക്കെ നോക്കേണ്ടെ പഠിച്ചല്ലോ അല്ലേ ഇതിന് വേണ്ടി എല്ലാം പഠിച്ചല്ലോ അല്ലേ നന്നായിട്ട് മുഖത്ത് ഭാവങ്ങളൊക്കെ വരണം കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിക്കണം കേട്ടോ ഒരിക്കലും പെട്ടെന്ന് ഒന്നും ഇതാകരുത് ഒരു ഒരു എപ്പഴും വെപ്രാളപ്പെടാതെ നല്ല രീതിയിൽ കളിക്കുക നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ ഒരുപാട് പേരൊന്നും ഇല്ല ഇപ്പം നമ്മളിപ്പം ഒരു അഞ്ച് പേരെങ്ങാണ്ടോ ഉണ്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പ് ആയിട്ടൊന്നും അല്ലെങ്കിലും മൂന്ന് പേര് നാല് പേര് വീതമായിട്ട് ഇപ്പം നമ്മൾ ചെയ്യിക്കുന്നുണ്ട് എന്തുവാ ഭരതനാട്യത്തിനിപ്പം ആണെങ്കിൽ മൂന്ന് പേരെ വന്നിട്ടുള്ളൂ ഒന്ന് ആതിര മോളുണ്ട് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ബെനീറ്റയുണ്ട് പിന്നെ ആണെങ്കിൽ ഇപ്പം മരിയയുണ്ട് അപ്പം പിന്നെ ഇവർ മൂന്ന് പേരും കൂടെ ഉള്ളൂ ആക്ച്വലി മ്മ് ആ ആതിര പിന്നെ ഈ വേഷഭൂഷങ്ങളൊക്കെ നോക്കിയോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മ്മ് ആ അത് നന്നായി ആ നൃത്തം എപ്പോഴും ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ആ നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ കാര്യമല്ലേ അപ്പം എപ്പഴും അതിനെപ്പറ്റിയൊന്ന് നോക്കുക കേട്ടോ